ഇത് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ സിസ്റ്ററല്ലേ ആ ഞാനിന്നലെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൈയിലൊരു മുഴയായിട്ട് അപ്പം ഡോക്ടർടൊപ്പം സിസ്റ്ററായിരുന്നു ഉണ്ടായിരുന്നത് ഓർമയുണ്ടോ ആ അതേല്ലേ സിസ്റ്റർ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ അതെ ബ്ലഡ്ഡ് ടെസ്റ്റ് ചെയ്തു എക്സറേ എടുത്തു ആ കൊണ്ട് കൊടുത്തിട്ടുണ്ട് എക്സറെയും ഡോക്ടർ നോക്കീട്ടുണ്ട് പക്ഷേ ഒന്നും പറഞ്ഞിട്ടില്ല്യ ഡോക്ടറ് എന്തേലും കുഴപ്പോണ്ടോന്നറിയാൻ മെഡിസിൻ തന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ച്ച കഴിഞ്ഞിട്ട്

ഓക്കെ അല്ലാതെ മുഴയങ്ങനെ വേറെ പ്രശ്നങ്ങളുള്ള മുഴകളൊന്നും അല്ലല്ലോ അല്ലേ അതെ അല്ലെങ്കിലോ ഓക്കെ സിസ്റ്റർ ഓക്കെ ഓക്കെ അല്ലതിൽ കുത്തി വെയ്ക്കണ കാര്യമൊക്കെ ഡോക്ടറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊണ്ടാന്നല്ലേ പറഞ്ഞത്

ആ ഓക്കെ സിസ്റ്റർ ഓക്കെ സിസ്റ്റർ താങ്ക് യൂ ആ